ഇപ്പോൾ നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് ഞാനിപ്പം എൻറെ വീടിന്റടുത്ത് ഇപ്പോൾ എൻറെ ഞാൻ വീട്ടിൽ തന്നെ ഒരു ചെടിയും അതിലൊരു മാവിൻ തയ്യ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻറെ കയ്യിന്ന് ഇത് അറിയാണ്ട് ഇതായിപ്പോയി അതായത് വെട്ടിപോയി വെട്ടിപോയി കഴിഞ്ഞപ്പം അത് ഇങ്ങനെ ഫുള്ളും ഒടിഞ്ഞു അതായത് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ അത് വി വീഴല്ലോ അപ്പോൾ വീണു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് എന്താ ചെയ്യണ്ടേ എന്ന് അറിയില്ല ഞാൻ ഒരു പത്ത് അഞ്ഞൂറ് റൂപ കൊടുത്തിട്ട് വാങ്ങി വെച്ച ഒരു തയ്യായിരുന്നു അപ്പോൾ അത് പിന്നെ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് യൂട്യൂബ് ചാനലിലേക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത് കിട്ടായിരുന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ അതെ മോഡലില് തന്നെ നമ്മള് ഈ വെട്ടി വീഴുന്ന ആണല്ലോ അപ്പോൾ അതിൻറെ അകത്ത് നമ്മളെങ്ങനെ ബെഡ് തൈ വച്ചതു പോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മുളയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടാവുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാനത് ചെയ്തു നോക്കിയായിരുന്നു അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ വിജയകരമായിട്ട് എനിക്കത് തോന്നി കാരണം ഞാൻ ഇങ്ങനെ കെട്ടിവച്ച് ഒരാഴ്ച വെയ്റ്റ് ചെയ്തു ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു രണ്ടുമൂന്ന് ഒരു മാസം കഴിഞ്ഞപ്പഴത്തേക്കും അതിന് ചെറുതായിട്ട് മുള അതായത് നല്ല രീതിയിൽ തളിർപ്പും കാര്യങ്ങളൊക്കെ ഇലക്ക് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്തായാലും ഉള്ള കാര്യമാണ് ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് എന്തായാലും